ഒരു സമയത്ത് ഞാൻ ഒരു ചെറിയ മനുഷ്യൻ്റെ കലാരൂപം ഉണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നു എൻ്റെ പ്രചോദനം എന്ന് വെച്ചാൽ സ്കൂളിലെ ചെറിയ ഒരു പരുപാടിക്ക് വേണ്ടി ഉണ്ടാക്കിയത് ആയിരുന്നു അതു കൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടു അത് ഉണ്ടാക്കി അതിലൂടെ എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെ കളിമണ്ണും മറ്റു പല ഉപകരണങ്ങളും കൊണ്ട് ഞാൻ അത് ഉണ്ടാക്കാനായി ശ്രമിച്ചു അങ്ങനെ അത് നല്ല രിതിയിൽ ഞാൻ ഉണ്ടാക്കി വളരെ വൃത്തിയിലായി ഓരോ കാര്യങ്ങളും സൂക്ഷ്മതയോടെ പരിശോധിച്ച് തന്നെ ഉണ്ടാക്കി എന്നാൽ ഞാൻ അത് ഉണക്കാൻ വെച്ചപ്പോൾ പെട്ടെന്ന് മഴ പെയ്തു പെട്ടെന്ന് തന്നെ എനിക്ക് അത് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അത് പൊട്ടിപ്പോവുകയാണ് ഉണ്ടായത് വീണ്ടും ഞാൻ തളരാതെ തന്നെ വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരുന്നു വിണ്ടും ഉണ്ടാക്കി ഉണ്ടാക്കാൻ ശ്രമിച്ചു ഉണ്ടാക്കി നല്ലൊരു പ്രതിമയായി തന്നെ അത് വന്നു ഉണക്കി എല്ലാം ശ്രദ്ധിച്ച് കൊണ്ട് തന്നെ ഉണക്കി റെഡിയാക്കി ഞാൻ സ്കൂളിൽ പ്രദർശിപ്പിച്ചു നല്ല അഭിപ്രായം ആണ് എനിക്ക് ലഭിച്ചത്